ഇപ്പം നമുക്ക് കിട്ടുന്ന വെള്ളം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഒറവ വെള്ളമാണ് ഉപയോഗിക്കല് ഇപ്പം ടാപ്പ് വെള്ളമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ക്ലോറിൻ വാട്ടർ ഒക്കെ ഉപയോഗിച്ചിട്ട് വരുന്ന നമ്മൾ അധികം യൂസെയ്യാറില്ല ഒറവകളാണ് അല്ലെൽ കിണറ് വെള്ളത്തിനെ ഒക്കെയാണ് യൂസ് ചെയ്യുക ക്ലോറിൻ വാ ചിലപ്പോൾ യൂസ് ചെയ്യാറ് ഇപ്പം ജപ്പാൻ കുടിവെള്ള പദ്ധതി അങ്ങനുള്ള പദ്ധതി ഇതിലൊക്കെ ഉള്ള വെള്ളം എന്ന് വെച്ചഴിഞ്ഞാല് ക്ലോറിൻ വാട്ടർ ആയിരിക്കും അല്ലെങ്കിൽ ഇപ്പം ബ്ലീച്ചിങ്ങ് പൗഡർ ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള വാട്ടർ ആയതോണ്ട് അത്രക്കും എന്താ പറയുക നമ്മുടെ ഒരു സാധാ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ പാചകത്തിന് കുടിക്കാനും പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ പറയുക ഒരു എന്തോ ഒരു പോലെ ടേസ്റ്റാ നമുക്ക് നമുക്ക് നോർമൽ ഒരു പാത്രം എന്താ പറയുക മിനറൽ വാട്ടർ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയാണ് പിന്നെ നമുക്കെന്ന് വെച്ചഴിഞ്ഞാല് വരുന്ന വെള്ളം ഒക്കെ ശുദ്ധമായിരിക്കും പക്ഷെ ഈ ക്ലോറിനും അങ്ങനെയുള്ളതൊക്കെ അപ്പം നമുക്ക് കുളിക്കുമ്പോൾ തന്നെ നമ്മള് തല എല്ലാം കഴുകുമ്പോൾ തന്നെ നമ്മടെ മുടി കൊഴിച്ചിലും അത്പോലെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് ടാപ്പ് വെള്ളം ലഭിക്കുമ്പോൾ അങ്ങനെയാണ് കിട്ട നമ്മടെ ജീവിതം എന്ന് വെച്ചഴിഞ്ഞാല് എന്താ പറയുക സാധാ നമ്മൾ ഒരു കിണറ്റിൽ നിന്ന് ഈ ഉപയോഗിക്കുന്ന വെള്ളത്തിനെക്കാളും എന്താ പറയുക ഇതിലെ പൈപ്പ് വെള്ളത്തിന് മാറ്റം ഉണ്ട് കാരണം നമ്മള് ഭക്ഷണം വെക്കാന് വേറൊരു വെള്ളവും അല്ലാത്ത കാര്യങ്ങളൊക്കെ ക്ലോറിൻ വാട്ടറും യൂസ് ചെയ്യണ്ട ഒരവസ്ഥ വരുന്നുണ്ട്